ആരാണ് ആരാണ് ഞാൻ

പിന്നെ രണ്ട് മുറി വേണോ അതോ സിംഗിള് മുറിയോ

നിങ്ങൾ വന്ന് നോക്ക് റൂമ് കണ്ടിട്ട് നിങ്ങൾ വന്ന് നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ പറയാം ഇത് ഉണ്ടിവിടെ അത് തൊട്ടടുത്ത് തന്നെ കടയുണ്ട് ഹോസ്പിറ്റലിവിടെ കോഴഞ്ചേരി അടുത്ത് തന്നെ ഇനി നിങ്ങൾ പോണ്ടിക്കലെങ്ങും പോവാനും കോട്ടയമോ പത്തനംതിട്ടയോ ചെങ്ങന്നൂരോ പന്തളമോ എല്ലാ വണ്ടി സൗകര്യങ്ങളുള്ള സ്ഥലവാണ് വീട് ഞാൻ തിങ്കളാഴ്ച വാ അല്ലേ നാളെ വൈകിട്ട് നിങ്ങൾ പള്ളി ഉച്ച കഴിഞ്ഞ് വരുവോ രാവിലെ ഞങ്ങൾ പള്ളീ പോവും അതുകൊണ്ടാണ് അഡ്വാൻസൊരു മൂവായിരം രൂപയാവും അതെ ഒരു മാസം മാസം ആ ഒരായിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ വരും നിങ്ങൾ വന്ന് നോക്ക് വന്നിട്ട് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം

നിങ്ങൾ വന്ന് നോക്ക് ആദ്യം ഹോട്ടലിൻ്റവിടെ സൗകര്യം നോക്ക് ബാത് റൂം അറ്റാച്ച്ഡാ

ആ വണ്ടിയുണ്ട് എപ്പോഴും ബസ്സിന് ഒരു ഒരു ആ നമുക്ക് ഒരു കിലോമീറ്ററുണ്ട് ഇവിടെ വണ്ടി സൗകര്യമുണ്ട് നിങ്ങൾക്ക് സ്കൂട്ടറ് കയറ്റി വെക്കാം കാറ് കയറ്റി വെക്കാം എല്ലാ സൗകര്യമുണ്ട് ഇത് ഇതിപ്പോൾ ഇല്ല

എന്നാൽ ഒന്നി നാളെ വാ അല്ലേൽ തിങ്കളാഴ്ച വാ ആ വരുമ്പം വിളിച്ച് വിളിക്കണം